ആ ചേട്ടാ പറയൂ നമസ്കാരം ആ ഓക്കേ അപ്പോൾ എങ്ങനത്തെ വീടാണ് വേണ്ടത് ആ ഓക്കേ അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് ആ ഓക്കേ ഇപ്പോൾ നമുക്ക് അപ്പോൾ ഫാമ് ഹൗസെന്ന് പറയുമ്പോൾ പഴയ മോഡലാണ് വേണ്ടത് നിങ്ങൾക്കല്ലെ അതോ ബംഗ്ളാവ് മോഡല് വേണോ ആ ഓക്കേ ഓടിൻ്റെയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഓക്കേ അപ്പോൾ അടുക്കള കി ആ അങ്ങനത്തെ അല്ലേ ആ നമുക്ക് പുറത്ത് മറ്റേയൊരു ഫാ ഫൈറൽ ഇതൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഗ്രില്ല് അങ്ങനത്തെ കാര്യങ്ങള് പഴയ ഒരു സെറ്റപ്പ് ആ ഓക്കേ ഓക്കേ മറ്റെ അതില് സ്വിമ്മിങ്ങ് പൂളോ അങ്ങനെയെന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് വേണോ ആ അങ്ങനെയാണല്ലേ കുളം എന്തായിത് ഉദ്ദേശിച്ചത് കഴിഞ്ഞാൽ നമുക്ക് നോക്കണെ പറഞ്ഞാലെ ആ ഓക്കേ അപ്പോൾ കുളത്തിൻ്റെ സെറ്റപ്പ് റെഡി ആക്കണം അല്ലേ അതായത് നമ്മുടെ ഈ പഴയ ഫാമ് ഹൗസെന്നൊക്കെ പറയുമ്പഴേ ഇപ്പോൾ നമ്മുടെ കയ്യില് ഒന്ന് രണ്ട് പ്രോപ്പർട്ടിയുണ്ട് പക്ഷേ അതില് കുളം നമ്മള് എക്സ്ട്രാ പണിയേണ്ടി വരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോളുള്ള പ്രോപ്പർട്ടീസിനൊന്നും ഇപ്പം കുളം വരുന്നില്ല അതായത് കുറച്ച് ഉള്ളിലേക്ക് ആയിട്ടുള്ളെതാണ് അതായത് നമ്മുടെയൊരു കാട് പോലത്തെ സ്ഥലമാണ് ഓക്കേ ആ അപ്പം അവിടെ നമുക്കൊന്ന് രണ്ട് പ്രോപ്പർട്ടീസുണ്ട് അതില് ഒന്ന് ഇപ്പോൾ ഏകദേശമൊരു ഇരുപത്തഞ്ചേക്കറിൻ്റെ ഒരു വലിയൊരു തോട്ടം പോലെയാണ് അതിൻറ്റുള്ളിലായിട്ട് പഴയ ഈ വീടും കാര്യങ്ങളും ആ അപ്പം അതുപോലത്തെയൊരു സെറ്റപ്പാണത് അതില് വന്നിട്ട് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ആ വീടിനെ കുറിച്ച് പറയണമെന്ന് പറയുമ്പോൾ ഓട് തന്നെയാണ് പക്ഷേ രണ്ട് നിലയാണത് രണ്ട് നിലയാണ് അപ്പോൾ അടിയിലും റൂമടിയില് വന്നിട്ട് നാല് റൂമ് വരുന്നുണ്ട് അതില് നമ്മള് കോമണായിട്ടുള്ള സിറ്റ് ഔട്ട് ഫ്രണ്ടില് വരുന്നുണ്ട് പിന്നെ അടിയില് ഒര് രണ്ട് ബെഡ് റൂമും ഒരു കിച്ചൺ വരുന്നുണ്ട് പിന്നൊരു മെയിൻ ഹോളാണ് അടിയില് വരുന്നത് നടുമുറ്റം ആ മോഡലല്ല കാരണം നമ്മളിത് ഫാമ് ഹൗസിൻ്റെ രീതിക്ക് പോകുമ്പഴേ അതില് നമുക്ക് നടുമുറ്റം അങ്ങനെ വരാറില്ല ആ ഓക്കേ ആ അങ്ങനേന്നു പറയുമ്പോൾ നമുക്ക് അ അങ്ങനത്തെയൊരു പ്രോപ്പർട്ടി ഉണ്ട് അത് കുറച്ച് പക്ഷേ എന്താ പറയുക ഈ റേയ്റ്റ് കൂടുതലായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അ അതില് റൂമും കാര്യങ്ങളൊക്കെ വരും അതില് കുറച്ചും കൂടെ റൂമ് കൂടുതല് വരും അടിയില് തന്നെ എട്ട് ഏഴ് എട്ട് ഒമ്പത് റൂമ് വരുന്നുണ്ട് അതില് ആ പ്രോപ്പർട്ടീയിൽ രണ്ട് നില തന്നെയാണ് രണ്ട് നിലയെന്ന് പറയുമ്പോൾ രണ്ട് നിലയില് മറ്റേ നമുക്ക് താമസം മൂന്നാമത്തെ നിലയില് മട്ട് പോലെ വരുന്നുണ്ട് നമുക്കതില് ആ അപ്പോൾ അതില് നമുക്ക് അതിൻ്റെ അതിൽ ഈ പറയുന്ന പോലെ കുളമുണ്ട് ഉള്ളില് നടുമുറ്റം കാര്യങ്ങള് അങ്ങനെ വരുന്നുണ്ട് ആ ഓക്കെ അതിലെന്നാൽ ആ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല അത് ഇതേ പോലെയൊരു ഇരുപത്തിയേഴര ഇരുപത്തിയേഴര ഏക്കറിനടുത്ത് വരുന്നുണ്ടത് കുറച്ചും കൂടെ വലുപ്പം കൂടുതലാണ് അപ്പോൾ ചുറ്റും അത്യാവശ്യം നല്ല മരങ്ങളും അതായത് നല്ല മരങ്ങള് മാത്രമേയുള്ളൂ ഇപ്പോൾ ബാക്കി കുറെ അനാവശ്യമായിട്ടുള്ള അനാമത്ത് മരങ്ങള് കുറെ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ചു അതൊക്കെ മുറിച്ചു ഇല്ല ഇപ്പം നല്ല മരങ്ങള് മാത്രമെ ഉള്ളൂ തേക്ക് ഈട്ടി പിന്നെ അങ്ങനത്തെ കുറച്ച് മരങ്ങള് പിന്നെ തെങ്ങുണ്ട് കവുങ്ങുണ്ട് അത്യാവശ്യം ആ പ്ലാവ് മാവ് അങ്ങനെ കുറച്ചുണ്ട് പിന്നെ കൃഷി നമുക്ക് കൃഷി ചെയ്യാൻ താൽപര്യമുണ്ടെന്ന് പറയുമ്പോൾ പച്ചക്കറി അങ്ങനെന്തേലും കൃഷിക്കാണെൽ അതിന് കുറച്ച് സ്പേസ് വേറെയുണ്ട് റോഡ് സൈഡൊന്നുമല്ല റോഡ് സൈഡൊന്നല്ല റോഡിന്ന് അതായത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരൂ ചെറിയ റോഡാണ് ടാറിട്ട റോഡ് തന്നെയാണ് ആ റോഡിൽ കൂടെ ഒരു ഒന്നര കിലോമീറ്ററ് ഉള്ളിലേക്ക് പോകണം പക്ഷേ അത്യാവശ്യം റേയ്ഞ്ചും ആ ആ പ്രൈവറ്റ് തന്നെയാണ് അതായത് ഈ വീട്ടില്ക്ക് തന്നെയാണ് വേറെ വഴിയൊന്നുമില്ല നേരെ ആ വീട്ടിലേയ്ക്ക് തന്നെയാണ് ഏകദേശം എല്ലാ സിമ്മിനും റേഞ്ചും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും അവിടെ ആഹ് വീടിൻ്റെ ബാക്കിലായിട്ട് തന്നെ കുളം വരുന്നുണ്ട് ആ കുളം ഒന്ന് റിനോവേറ്റ് ചെയ്യണം അത് കുറച്ചായിട്ട് അതൊന്ന് റിനോവേറ്റ് ചെയ്തിട്ട് അപ്പോൾ സാർ ക്ക് എന്നാണ് ഒഴിവ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് പോയി കാണാൻ പറ്റുവോ അതേയോ ആ ഓക്കേ അപ്പോൾ രാവിലെ സാറ്റർഡേ മോണിംഗ് ഒന്ന് എന്നെ വിളിക്കാൻ പറ്റുവോ ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി ഓക്കേയല്ലേ അപ്പോൾ നമുക്ക് റേയ്റ്റ് അതിന് വന്നിട്ട് അവര് പറയുന്ന റേയ്റ്റ് വന്നിട്ട് അമ്പത്തിരണ്ട് ഫിഫ്റ്റി ടു ലാക്സാണ് പറയുന്നത് നമുക്ക് അത് സാറ് ഓക്കേയാണെൽ ആ നമുക്കാ സ്ഥലം നോക്കിയിട്ട് ഓക്കേയാണെന്ന് പറയുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ഇതേ പോലത്തെയൊരു പ്രോപ്പർട്ടി വേറൊന്നും കൂടി വരുന്നുണ്ട് ഒരൂ അത് പക്ഷേ കുറച്ചും കൂടെ ഏരിയ കൂടുതലാണ് പത്തെ നാപ്പത്തിരണ്ടര ഏക്കറൊക്കെ വരുന്നെന്ന് തോന്നുന്നുണ്ട് അതിന് എഴുപത്തി ഒമ്പത് ലക്ഷമാണ് അവര് പറയുന്നത് അഥവാ സാർക്ക് വീട് കുറച്ചും കൂടെ ആ കുറച്ചും കൂടെ കൂടും സ്ഥലവും പിന്നെ വീട് കുറച്ചും കൂടെ വലുപ്പം ഉണ്ടാവും റൂമും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വലുപ്പം തന്നെയുണ്ട് അപ്പോൾ സാർക്ക് ഏതാണ് ഓക്കേ ആ ഇത് നോക്കിയിട്ട് ആ ഇത് ഓക്കേയാണേൽ ആ പിന്നെന്നെ രാവിലെ വിളിക്കുകയോ വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി നമുക്ക് രണ്ടും പോയി നോക്കാം അപ്പോൾ ഏതാണ് സാറിന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്കത് നോക്കാം ഓക്കേയല്ലേ താങ്ക് യൂ സാർ ഓക്കേ താങ്ക് യൂ രാവിലെ ഒന്ന് വിളിച്ചാൽ മതി വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി ഓക്കേ